അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഏഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് അഞ്ച് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് ആറ് ആറ് രണ്ടായിരത്തിപ്പത്ത്